ആ ഹലോ മൊബൈൽ ഷോപ്പല്ലേ ആ ഞാന് പുതിയൊരു ഫോണെടുക്കാൻ വിളിക്കുകയാണ് കസ്റ്റമറായിരുന്നു എനിക്ക് പോക്കോ എക്സ് ഫൈവിൻ്റെ സീരീസിലുള്ള ഫോണുണ്ടോ ആ സാധനമുണ്ടോ പോക്കോയുടെ

ആ എന്ത് വിലയാകും ഈ ഫൈവ് പ്രോ പോക്കോ എക്സ് ഫൈവിൻ്റെ മ്മ് ആ

ആ സെയിം റേയ്ഞ്ചാകും അല്ലേ മ്മ് മ്മ് മ്മ് ആണോ എനിക്ക് അത്രയും റേയ്ഞ്ചില് വേണ്ട ക്യാഷ് കുറച്ചുകൂടെ ഇതിൻ്റെ ഫീച്ചേഴ്സൊന്ന് പറയാമോ പോക്കോയുടെ ഞാൻ നല്ല റിവ്യൂസൊക്കെയാണല്ലോ കണ്ടത് പക്ഷേ അപ്പോള് അതില് അതുകൊണ്ടാണ് അതു മതിയെന്ന് വിചാരിച്ചത്

ആ ആ ആ മ്മ് മ്മ് മ്മ് മ്മ്

പിന്നെന്താണ് ഇഷ്യൂസുള്ളത് ഐ മീൻ ആളുകൾ എന്താണ് ഇത് അങ്ങനെ പോകാത്തത് ആ ശരി ആ മ്മ് വെറെ ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് ഏതാണ് നമുക്കുള്ളത് ഫോണ്

ആ എനിക്കാ റേയ്ഞ്ചില് പോകേണ്ട ഞാനൊരു ഇരുപത്തിയഞ്ച് ആ റേയ്ഞ്ചൊക്കെ മതി അതിനപ്പുറത്തേക്ക് പോകേണ്ട

മ്മ് എന്നാലും ആ അത് പറയാമോ അതെങ്ങനെയുണ്ടാകും

മ്മ് മ്മ് മ്മ് മ്മ്

ഓക്കെ ആ പൈസയും കുറെയൊന്നും വേണ്ട അപ്പോള് മൊബൈൽ ഫോണ് ആ

ആ താങ്ക് യൂ ഓക്കെ ഓക്കെ എങ്ങനെ നിങ്ങള്ക്കിപ്പോള് ഓഫര് വല്ലതുമുണ്ടോ പോക്കോ ആ എങ്ങനെയാണ് ഓഫറൊന്ന് പറയാമോ ഓക്കെ അല്ലാതെ ഐ മീൻ നിങ്ങള്ക്ക് വേറെ

ഞാൻ കറക്ട് ഐ മീന് എന്തോരം കുറയും മ്മ് ഓക്കെ അപ്പോള് ഇതിലേക്ക് നിങ്ങള്ക്ക് ഹോം ഡെലിവറിയുണ്ടോ മ്മ് മ്മ് മ്മ് ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങളുടെ കട കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഓക്കെ ഓക്കെ മ്മ് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ മ്മ്